ഞങ്ങളുടെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ ആൾക്കാർക്ക് കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ വഴി സൗകര്യം കുറവാണ് വഴിയുണ്ടെങ്കിൽ കൂടി അത് ടാർ ചെയ്യാത്ത റോഡും അങ്ങനെയുള്ളത് ആയത് കൊണ്ട് വാഹനങ്ങൾക്ക് കടന്നു വരാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ ചെന്ന് നിൽക്കുമ്പം അവിടെ കട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല കഥകളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് അങ്ങോട്ട് അട്ട്രാക്ഷൻ കിട്ടും പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ഭംഗിക്കു വേണ്ടി അതൊന്ന് മോഡി പിടിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും അപ്പോൾ ആൾക്കാർക്ക് വരാനും കാണാനും ഇഷ്ടം തോന്നും പിന്നെ വെള്ളച്ചാട്ടത്തിലോട്ടാ നമ്മൾ നോക്കുമ്പം ആൾക്കാർക്ക് വരാൻ അവിടെ അപകടകരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ അപകട സാഹചര്യം ഒഴിവാക്കാൻ നമ്മൾ അവിടെ എന്തെങ്കിലും ബോഡുകളോ എന്തെങ്കിലും സ്ഥാപിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ വന്നു വെള്ളമായത് കൊണ്ട് അവിടെ വന്നു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് പിള്ളേരൊക്കെ വരും കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോട്ട് വരുന്നത് അപ്പോൾ അവർക്ക് ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായിട്ട് ചെല്ലുന്ന സമയത്ത് കുറെയേറെ പ്രശ്നങ്ങളുണ്ട് അവിടെ അതായത് ഒരു സൈൻ ബോഡുകൾ വേണം പിന്നെ കൂടെ ആൾക്കാർ എവിടെ ഇറങ്ങണം എന്നുള്ള ഒരു ആൾക്കാർക്ക് അറിയത്തില്ല പിന്നെ അതിന് ഒരു പരിഹാരം അവിടെ നിന്ന് ഉണ്ടാക്കുക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു പിന്നെ വെള്ളത്തിൽ വെള്ളമായത് കൊണ്ട് ആൾക്കാർക്ക് അവിടെ ഒരു സെക്യൂരിറ്റി അങ്ങനെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും പിന്നെ വഴിയുടെ കാര്യം വഴി റോഡ് നല്ല റോഡ് വീതിയുള്ള റോഡുകളൊക്കെ ആണെങ്കിൽ മാത്രമേ കൂടുതൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളു ഇപ്പം ചെല്ലുന്നോണ്ട് തന്നെ ആ വഴി സൗകര്യം ഇല്ലാത്തകൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒത്തിരി ആൾക്കാർക്കൊന്നും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റത്തില്ല വിനോദ സഞ്ചാര കേന്ദ്രം എന്നു പറഞ്ഞാൽ നല്ല ഒരു വെള്ളച്ചാട്ടമാണ് അത് കാണാൻ ഭംഗിയുള്ളതാണ് എപ്പോഴും തന്നെ വെള്ളം ഉള്ളതുമാണ് മഴ നല്ല മഴയും വെയിലും ഉള്ള സമയത്തുല്ലാം ഇവിടെ നല്ല വെള്ളമുള്ള സമയത്തും ആൾക്കാർക്ക് വരാനും കാണാനും ഉപയോഗപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണത് സ്കൂളുകളിൽ നിന്നൊക്കെ പിള്ളേരെ അത് കാണാനും അവിടെ പരിസ്ഥിതി പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാനും ആൾക്കാർ സ്കൂളുകളിൽ നിന്നൊക്കെ പിള്ളാരെ കൊണ്ട് പോകുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു വെക്കേഷൻ ടൈമിലാണെങ്കിൽ പോലും ഒരു ഊർജ്ജസ്വലത കിട്ടുന്ന ഒന്നാണീ വെള്ളച്ചാട്ടം അതുകൊണ്ട് കൂടുതലായിട്ടും ഗവണ്മെൻ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെയാണെങ്കിലും ഒരു പ്രത്യേക കേറിങ് എല്ലാം ഒന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒരു വിനോദ സഞ്ചാര സഞ്ചാര കേന്ദ്രം എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടു പോവാൻ പറ്റും